ആ ഹലോ ആ ഭാരത് ഗേറ്റ്സ് ഗ്യാസ് ഏജൻസി അല്ലെ എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ഒരു സിലിണ്ടർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സാധനം വന്നപ്പോൾ അതിൻ്റെ ഈ ഹെഡ് ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സിലിണ്ടറ് കണക്ട് ഇത് അതിൻ്റെ റെഗുലേറ്ററ് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ നമ്മളുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് അത്യാവശ്യത്തിന് വല്ലതും കുക്ക് ചെയ്യാനൊക്കെ നോക്കുമ്പത്തേക്കിനും ഈ സാധനം കംപ്ലയിൻ്റെയിട്ടിരിക്കുവാണ് അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് കുക്കിംഗ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പോൾ നമ്മളൊരു അത്യാവിശ്യത്തിനാണ് നമ്മള് ഗ്യാസ് അറിയാമല്ലോ അത്യാവശ്യ സമയങ്ങളിലാണ് ഗ്യാസ് എടുത്ത് കുക്ക് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഇത് ബുദ്ധിമുട്ടാവും അപ്പോൾ നിങ്ങളുടെ ഏജൻസി അതൊന്നു ശ്രദ്ധിച്ചൊക്കെ കൈകാര്യം ചെയ്യണം പിന്നെ നിങ്ങളൊരു ഒരു നിങ്ങള് സത്യം പറഞ്ഞാൽ ക്വാളിറ്റി കണ്ട്രോള് ചെയ്ത് ഇതൊക്കെ ചെക്ക് വേണം ഇതൊക്കെ ആൾക്കാരിലോട്ട് എത്തിക്കാൻ അല്ലാതെ ഇങ്ങനെ ഒന്നും നോക്കാതെ ആൾക്കാർക്ക് സാധനം പൈസയും വാങ്ങിച്ചിട്ട് ഇങ്ങനത്തെ കേടായ സാധനമൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം നിങ്ങളുടെ സത് ഏജൻസിയുടെ കയ്യിൽ നിന്ന് ഞാൻ ഇത് ബുക്കിംഗ് ക്യാൻസൽ ആണെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും നല്ല ഏജൻസിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല കമ്പനിയുടെയോ ബുക്കിംഗ് ആണ് ഇനി തൊട്ട് സ്വീകരിക്കാൻ പോകുന്നത്